എൻ്റെ ഗ്രാമത്തിലെ സ്കൂളിൽ നല്ല മൂത്രപ്പുര കുടിവെള്ളം പുസ്തകങ്ങൾ മേശ കസേര ഭക്ഷണം ഭക്ഷണവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു ഓർമ്മ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽത്തെ സ്കൂൾ കണ്ടിട്ട് ധാരാളം കാലമായല്ലോ അപ്പോൾ അതിൽ എൻ്റെ ഒരു ഓർമ്മ വെച്ച് ധാരാളം നല്ല മൂത്രപ്പുര ഉണ്ട് സ്വാഭാവികമായും അധികം സ്കൂളുകളിലും മൂത്രപ്പുരയുടെ എന്നുള്ളത് വളരെയധികം പ്രശ്നമായ ഒരു അതെങ്കിൽ ഒരു തൃപ്തികരമല്ലാത്ത രീതിയിലായിരിക്കും ഞാൻ പഠിക്കുന്ന സമയത്തല്ലാം മൂത്രപുര ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അതായത് ഞാൻ പഠിക്കുന്ന രീതിയിൽ അത് തൃപ്തികരമാണെങ്കിലും പിന്നീട് അതാണ് ഈ സമയങ്ങൾ ഉണ്ടായതെങ്കിൽ അത് തൃപ്തിപരമായ അല്ല അല്ലാത്ത രീതിയായിരിക്കാം കാരണം ഏ എപ്പോഴും സമുദായം മെച്ചപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ പഴയ രീതികളിലെ മൂത്രപ്പുര എന്നെല്ലാം വളരെയധികം വ്യത്യസ്തമാകേണ്ടതുണ്ട് അപ്പോൾ പിന്നീട് അങ്ങനെയുള്ള കാരാളം മൂത്ര മൂത്രപ്പുരയുടെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്കെല്ലാം സ്കൂളുകളിൽനിന്ന് ഞാൻ പടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ലഭിച്ചിരുന്നത് സാധാ കുടിവെള്ളമായിരുന്നു അല്ലെങ്കിൽ സാധാ പൈപ്പിൽനിന്ന് ലഭിക്കുന്ന വെള്ളം അങ്ങനെയുള്ള വെള്ളം വെള്ളം നാം കുടിച്ചുകൊണ്ടിരുന്നത് മറിച്ച് ഇന്ന് ഈ കാലങ്ങൾ കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല കാരണം അതിൽ പ്യൂരിഫൈഡ് വാട്ടർ എന്നൊക്കെ പറയുന്ന ആവക ഐറ്റംസുകൾ ആ കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട് അങ്ങനെ ഏ പ്യൂരിഫൈഡ് വാട്ടറുകളില് വാട്ടറുകളാണ് ഇപ്പോൾ ഉള്ള സ്കൂളുകള്ലെല്ലാം ലഭിക്കുന്നത് മുത്രപ്പുരയുടെയും കൂടിവെള്ളത്തിൻ്റെയും കാര്യങ്ങൾ പ്രശ്നമൊന്നും ഇല്ല പുസ്തകങ്ങൾ ധാരാളം വേണം കുട്ടികൾക്ക് അതായത് ധാരാളം ലേ കുട്ടികളുടെ പ്രത്യകിച്ച് കുട്ടികൾ ധാരാളം ലേഖനങ്ങളോ ധാരാളം ഫീച്ചറുകളോ വയിക്കുമോ കൊടുക്കുമോ എല്ലാം ഉണ്ട് അവരുടെ ഭാവനാശക്തിയാണ് നാം വർദ്ധിപ്പിച്ചെടുക്കേണ്ടത് അതിൽനിന്നും ധാരാളം നോവലുകളും ധാരാളം കഥകളുമാണ് നമുക്ക് കുട്ടികൾക്ക് നല്കേണ്ടത് അവരുടെ ഈ ഭാവനാശക്തികൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ വേറൊന്നും അല്ല അവിടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ ഭക്ഷണ മേശയും കസാരയൊക്കെ വെച്ച് നോക്കുമ്പോൾ അധികം നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ലഭിക്കാവുന്നത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെയുള്ള ധാരാളം കുട്ടികൾക്ക് ഇപ്പോൾ സ്വാഭാവികമായപ്പോഴും സ്കൂളുകൾ കസേര എന്നുള്ളതല്ല ബെഞ്ചുകൾ തന്നെയാണ് വേണ്ടത് കാരണം ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മെച്ചപ്പെടുത്തേണ്ടത് എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ കസേരകൾ സ്വഭാവം മോഡേൺ ആയി വരുമ്പോൾ കസേരകൾ യൂസ് ചെയ്യുന്നത് മാറ്റണം കാരണം പഴയുള്ള ഒരു ബെഞ്ച് ബെഞ്ച് സിസ്റ്റമാണ് ഏറ്റവും നല്ല കാരണം കസേരകളിൽ ഇരിക്കുമ്പോൾ ഉള്ള ബെഞ്ചുകളിൽ ഒരു നാല് കുട്ടികൾ ഒപ്പം ഇരിക്കുമ്പോളുള്ള ഒരു ഒരു അടുപ്പം നാല് കസാരകളിൽ അടുത്ത് ഇരിക്കുമ്പോൾ ലഭിച്ചെന്ന് വരികയില്ല അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം ഭക്ഷണം നമുക്കെല്ലാം തൃപ്തികരമായ രീതിയിലായിരുന്നു സ്കൂളിൽ നിന്നുണ്ടായിരുന്ന ഭക്ഷണം പക്ഷെ ഇപ്പോൾ ഉള്ളത് മെച്ചപ്പെട്ട് വരുന്നെന്നാണ് അറിയ അറിയുന്നത് മെച്ചപ്പെട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നീട് വേറെ ഞാൻ പ്രത്യേകം പറയാനുള്ളത് കസേരകളുള്ള സിസ്റ്റമല്ല ബെഞ്ചായിരുന്നു ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയുകയാണ് ഇനിയിപ്പോൾ സ്കൂളുകളും മെച്ചപ്പെടുത്തേണ്ടത് എന്തൊക്കെ വെച്ചാൽ മൂത്രപ്പുരകളാണ് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് സ്കൂളുകൾ കാരണം അതെല്ലാവർക്കും ഒരു ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഒരു പേഴ്സണലായി സ്ഥലമായതു കൊണ്ട് അങ്ങനെയുള്ള മെച്ചപ്പെടുത്തേണ്ടതുണ്ട് കസേരകളും അതുപോലൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞപോലെ ബെഞ്ജ ഏറ്റവും നല്ലത്